ഗതാഗത സൗകര്യക്കുറവ് ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം മനുഷ്യൻ്റെ ജീവിതചക്രത്തിന് വേഗത കൂട്ടുന്നത് കൂടുതൽ സൗകര്യപ്രദമായ ഗതാഗത സൗകര്യങ്ങളുള്ളപ്പോൾ ത് മാത്രമാണ് പണ്ട് കാളവണ്ടികളിൽ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് കാറുകളിലായി യാത്ര കാറുകളിൽ നിന്നും ട്രെയിനുകളും ട്രെയിനുകളും പ്ലെയിൻ പ്ലെയിനുകളും പിടിച്ച് മനുഷ്യന് യാത്ര ചെയ്യുന്നുണ്ട് സമയത്തിന് സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വില അല്ലേ എത്രയും പെട്ടെന്ന് ഗതാഗത സൗകര്യങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഗതാഗത സൗകര്യം കുറവുള്ള ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഉപരിപഠനത്തിന് പോകുന്നതിനോ എല്ലാം ബുദ്ധിമുട്ട് ഉണ്ട് തീർച്ചയായും അവിടെ ജീവിതത്തിൻ്റെ വേഗത തന്നെ കു കുറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗതാഗത സൗകര്യം കുറവുള്ള പ്രദേശങ്ങളിൽ ജീവിതം സ്ലോ ആയിരിക്കും എല്ലാവർക്കും നമുക്കറിയാം എല്ലാവർക്കും ഇരുപത്തി നാല് മണിക്കൂർ തന്നെ ഒരു ദിവസം ഉള്ളു പക്ഷേ ഗതാഗത സൗകര്യം കൂടുലുള്ളോർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഗതാഗത സൗകര്യം കുറവുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പഴി കഴിയുന്നില്ല